ഏറ്റവും ബുദ്ധിമുട്ടായൊരു പാചകവിധിയെ കുറിച്ച് നമ്മൾ പറയുകയാണങ്കിൽ അത് എനിക്കൊരു ബിരിയാണി വയ്ക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ബിരിയാണി എന്ന് പറയുന്നത് എന്നാൽ അത് സ്വന്തായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ മൂന്നുനാൽ പ്രാവശ്യങ്ങളിലൊക്കെ ഞാൻ അത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കി ഫ്ലോപ്പ് ആയി പോയൊരു സാഹചര്യമായിരിന്നു എനിക്ക് വന്നത് അതിൻ്റെ ഒന്നിൻ്റെ ഒന്നുങ്കിൽ നമ്മളതിനെ എസ്സൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി പോകുന്നൊരു സാഹചര്യം അങ്ങനെ അങ്ങനെ ബിരിയാണി കയ്പ്പ് വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ എടുത്ത് കളയേണ്ട ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ തയ്യാറാക്കുന്നതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നതിനകത്തും മസാല കൂട്ടുകളുടെയൊക്കെ ഉപയോഗത്തിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ കൂടി പോയതിൻ്റെ സാഹചര്യത്തിനൊക്കെ വന്നിട്ട് കുറേ പ്രാവശ്യമൊക്കെ ബിരിയാണി എനിക്ക് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് ഞാനിപ്പഴും വീണ്ടും എന്നാലും ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചെറിയ രീതിയിലൊക്കെ ശരിയായി വരികയൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ ദമ്മൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് ദമ്മിന് വേണ്ടിയിട്ട് അടച്ചിട്ട് അതിൻ്റെ മേളിൽ കനലൊക്കെ വച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ വീണ്ടും അടപ്പ് ഒക്കെ തുറന്ന് എടുക്കുമ്പോഴത്തേക്കും ഉള്ളിയൊക്കെ വീണ്ടും ഒന്നുകൂടെ കരിഞ്ഞിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെയായിട്ട് വരുന്നൊരു സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ബിരിയാണിയെ കുറിച്ചാണ് പാചകവിധിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് വന്നത്